കൃഷി സേവനം വ്യവസായം ഈ മൂന്ന് മേഖലകളിലാണ് ഇപ്പോൾ വെല്ലുവിളി അതുപോലെ തന്നെ അവസരങ്ങളക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പം കൃഷിയുടെ കാര്യത്തിലാണെങ്കിൽ കൃഷി ചെയ്യാനായിട്ടൊന്നും ഇപ്പം ഭൂമി ഇല്ല കാരണം ആ ഭൂമി ഫുൾ മണ്ണിട്ട് നികത്തി അവിടെ വലിയ വലിയ ഫാക്ടറികളും വീടുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കൃഷി ചെയ്യാൻ സ്ഥലവും ഭൂമിയൊന്നുമില്ല അതുപോലെ കൃഷിക്കാരും അതുകൊണ്ട് കുറവാണ് വ്യവസായം നോക്കുവാണെങ്കിൽ നമ്മളുടെ ഐ ടി ഫീൽഡ് ഐ ടി ഫീൽഡിലൊക്കെ ഇപ്പം നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട് നല്ല ഓഫറുകളുണ്ട് ഇപ്പം കൂടുതലും പേര് ആ ഒര് ഫീൽഡിലേക്ക് പോകാനാണ് നോക്കുന്നത് അതുപോലെ സേവനത്തിൻറ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കിപ്പോൾ നമ്മളുടെ കോവിഡ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഡോക്ടർമാരുടേയും നേഴ്സ്മാരുടേക്ക സഹായം നമുക്കാവിശ്യമായിട്ട് വന്നു അപ്പോൾ ആ ഒരു ഫീൽഡെന്ന് പറയുമ്പഴും നല്ലൊരു ഫീൽഡ് തന്നെയാണ് കാരണം അതും മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ നോക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അത് അവര് നല്ല രീതിക്ക് ആ ഒരു ആ ഒരു സമയത്ത് ചെയ്യുകയും ചെയ്തു അങ്ങനെ